ഹലോ നിധി റസ്റ്റോറൻ്റ് എന്ത് ബുക്ക് ചെയ്തിട്ടായിരുന്നു ഓക്കെ സൗത്ത് ഇന്ത്യൻ വേണോ നോർത്ത് ഇന്ത്യൻ വേണോ സൗത്ത് ഇന്ത്യൻ ആയിട്ട് നമുക്ക് പൂരി കിഴങ്ങുകറി അവൈലബിൾ ആണ് ഇഡലി ദോശ ഇഡലി സാമ്പാർ അവൈലബിൾ ആണ് ദോശ ചമ്മന്തി അവൈലബിൾ ആണ് പുട്ടും കടലയും അവൈലബിൾ ആണ് പോരാഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചപ്പാത്തി കറി അവൈലബിൾ ആണ് അപ്പം അപ്പം അവൈലബിൾ ആണ് പാലപ്പം അപ്പം പാലപ്പം അവൈ അവൈലബിൾ ആണ് വെജിറ്റബിൾ കറി അവൈലബിൾ ആണ് നോൺ വെജിറ്റബിൾ കറികളും അവൈലബിൾ ആണ് ജ്യൂസ് ഐറ്റംസ് നമുക്ക് ഫ്രഷ് ഫ്രഷ് ലൈം അവൈലബിൾ ആണ് കാ നമുക്ക് സോഡാ ഒഴിച്ചത് വേണോ അതോ ഫ്രഷ് ഫ്രഷ് ഫ്രൂട്സ് വേണോ ആപ്പിൾ ജ്യൂസ് അവൈലബിൾ ആണ് നമുക്ക് ഓറഞ്ച് ജ്യൂസ് അവൈലബിൾ ആണ് ഫ്രഷ് ലൈം അവൈലബിൾ ആണ് ബീറ്റ്റൂട്ട് ജ്യൂസസ് അവൈലബിൾ ആണ് കാരറ്റ് ജ്യൂസ് ഒക്കെ അവൈലബിൾ ആണ് മാം നമുക്ക് ആ ച് ടീ ഉണ്ട് ചായയും കോഫിയും രണ്ടും അവൈലബിൾ ആണ് ഷുഗർ ഇട്ടത് വേണോ ഇടാതെ വേണോ ആ ഷുഗർ ചൈനീസ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹക്കാ ന്യൂഡിൽസ് അവൈലബിൾ ആണ് ഹക്കാ ന്യൂഡിൽസ് പറയുമ്പോഴത്തേനും വെജും നോൺ വെജും ഉണ്ട് അവയില് മഞ്ചൂരിയൻ അവൈലബിൾ ആണ് എന്താണ് വേണ്ടതെന്ന് പറയുമായിരുന്നെങ്കിൽ ഓർഡർ ബുക്ക് ചെയ്യാമായിരുന്നു നമുക്ക് ഓക്കെ

ആ ബുഫേ നമുക്ക് അവൈലബിൾ ആണ് ബ പക്ഷേ അത് നമുക്ക് പൻ പന്ത്രണ്ടരയ്ക്ക് ശേഷമേ സ്റ്റാർട്ട് ആവുള്ളൂ എന്തൊക്കെയാണ് അപ്പോൾ വേണ്ടത് അപ്പവും മുട്ടക്കറിയും എത്ര പ്ലേറ്റ് വേണം എന്തോ ലഞ്ച് ആ ലഞ്ച് അവൈലബിൾ ആണ് ൽ ലഞ്ചിന് നമുക്ക് നോർമൽ നൂ വെജും ഉണ്ട് നോൺ വെജിലും വെജും ഉണ്ട് നമുക്ക് വെജിൽ ഓലൻ സാമ്പാർ അവിയൽ മോര് കറി ചോ ചോറ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട് നമുക്ക് നോൺ വെജ് വരുവാണെങ്കിൽ ഫിഷ് കറി പല തരത്തിലുള്ള ഫിഷ് കറി ഉണ്ട് തേങ്ങ അരച്ച ഫിഷ് കറി ഉണ്ട് മുളകിട്ട ഫിഷ് കറി ഉണ്ട് വറുത്ത മീൻ വറുത്തതുണ്ട് ചിക്കൻ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ മഞ്ചൂ ചിക്കൻ മലബാർ ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ തേ തേങ്ങയിട്ട് വറുത്ത് വറുത്ത് വെച്ച പോത്ത് കറി ഉണ്ട് പോത്ത് ഫ്രൈ ഉണ്ട് ആ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബിരിയാണി മന്തി ഇവയെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ആ ഹാ അഞ്ച് അപ്പവും എത്ര അപ്പം വേണം അഞ്ച് പേർക്ക് അഞ്ച് പേർ എത്ര അപ്പം വേണം മൊത്തത്തോടെ ഓ ഇരുപത് അപ്പവും എത്ര പ്ലേറ്റ് മുട്ടക്കറി വേണം അഞ്ച് പ്ലേറ്റ് മുട്ടക്കറിയും ഇരുപത് അപ്പവും പിന്നെ ചായ കോഫി എന്തെങ്കിലും വേണോ അഞ്ച് കോഫി വേണം വിത്ത് ഷുഗർ വിത്തൗട്ട് ഷുഗർ ആ വിത്ത് ഷുഗർ ഓക്കെ ആ പൈനാപ്പിൾ ജ്യൂസ് അതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണോ ഓക്കെ ഓക്കെ

അഞ്ച് ഊണ് അതിനകത്ത് നോൺ ഫുൾ നോൺ വെജ് ആഡ് ചെയ്യണോ ഓ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും ഈവനിങ്ങ് ടീ കോഫി എന്തെങ്കിലും ആ നമുക്ക് സ്നാക്സ് അവൈലബിൾ ആണ് നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ഡിന്നർ എന്തെങ്കിലും പ്രീ ബുക്ക് ചെയ്യുന്നുണ്ടോ ഓക്കെ ഓക്കെ